അന്യസംസ്ഥാന തൊഴിലാളികൾക്കു കൃഷിപ്പണി അടിപൊളിയായിട്ടു ചെയ്യാൻ പറ്റുന്നതാണ് കാരണം ഏറ്റവും കൂടുതല് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് കേരളത്തില് വന്നു പണിയെടുക്കുന്നത് അവര് ഇന്ന ജോലി എന്നില്ല ഏതു ജോലിക്കും അവര് പ്രാപ്തരാണ് കാരണം ഇപ്പോള് എന്താണെന്നുണ്ടെങ്കിലും ബിൽഡിങ്ങിന് പെയിന്റിംഗ് പണിയാണെന്നുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കാണെന്നുണ്ടെങ്കിലും ഏതു കൂലിപ്പണി വേണമെന്നുണ്ടെങ്കിലും ഒരു മലയാളി അപേക്ഷിച്ചു നോക്കുമ്പോള് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോള് നെൽകൃഷിയിലും അതുപോലെ തന്നെ ഈ ബംഗാളികളാണ് ഏറ്റവും കൂടുതല് വന്നിട്ടുള്ളത് അന്യസംസ്ഥാന തൊഴിലാളികള് അവര് ഇപ്പോള് കൃഷിപ്പണിയില് ഇപ്പോള് നെൽ കൃഷിയാണെന്നുണ്ടെങ്കില് പാടത്തില് നെല്ലു വിതയ്ക്കാനാണെന്നുണ്ടെങ്കിലും കൊയ്യാനാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതല് മുന്നിട്ടിറങ്ങുന്നത് അവരെന്നെയാണ് അവർക്കു കൂടുതല് മികവോടുകൂടി നല്ല രീതിയില് മെച്ചപ്പെടുത്തി നടക്കണമെന്നുണ്ടെങ്കില് ചെറിയൊരു പ്രോഗ്രാം ക്ലാസ്സുകളോ എന്തെങ്കിലൊക്കെ അതിനെക്കുറിച്ചുള്ളൊ രു അറിവ് അവർക്കു നന്നായിട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കില് കൃഷി രീതി നല്ല രീതിയില് മെച്ചപ്പെട്ടു നടക്കും ഇപ്പോ ടാപ്പിങ് ഇപ്പോള് അതുപോലെ ടാപ്പിങ് വെട്ടാനാണെങ്കിൽ റബ്ബര് വെട്ടാനാണെന്നുണ്ടെങ്കില് ഇപ്പോള് അന്യസംസ്ഥാന തൊഴിലാളികളാണു വെട്ടുന്നത് അവര് നന്നായിട്ടു ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവര് ഏറ്റവും മിടുക്കരാണ് ഇപ്പോള് ആ അതായത് ഒരു ദിവസം പോലും മടിപിടിച്ചിരിക്കാത്ത ആളുകളാണ് ഏറ്റവും കൂടുതല് ഇവിടെ വന്നു പണിയെടുക്കുന്നത്